എനിക്ക് അങ്ങനെ ഗതാഗതത്തിന് സൗകര്യക്കുറവ് ഞാൻ ഒരു സിറ്റിയിലാണ് ജനിച്ചത് അതുകൊണ്ട് എനിക്ക് ഗതാഗതസൗകര്യം അങ്ങനെ കുറവായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ കല്ല്യാണം കഴിച്ച് വന്നതൊരു ചെറിയ ഗ്രാമത്തിലാണ് അപ്പോൾ ഇവിടെയെന്ന് പറയുകയാണെങ്കിൽ ഒരു രണ്ട് രണ്ടര കിലോമീറ്ററ് വേണം സിറ്റിയിലേക്ക് ട്രാവലിംഗുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ബസ്സ് അവൈലബിളല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ടാക്സീനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഓട്ടോറിക്ഷയും ടാക്സിയും കിട്ടുന്നതുകൊണ്ട് ഗതാഗതത്തിനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ടാലും നമുക്ക് അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്ന പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മഴയൊക്കെ നല്ല മഴ ഒക്കെ പെയ്ത് റോട്ടിൽ നിറയെ വെള്ളം കയറുന്നുണ്ട് പാടത്തുനിന്നൊക്കെ ഇങ്ങനെ വെള്ളം കയറി കഴിയുമ്പോൾ റോഡൊക്കെ വെള്ളത്തിന്റെയടിയിലാവുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് നമുക്കങ്ങനെ ട്രാവലിംഗിനൊന്നും വെള്ളം വണ്ടികളൊന്നും പോകില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ചുറ്റിക്കറങ്ങി പോവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോൾ അത് തന്നെ ആണെങ്കിലും നമ്മുടെ ഇവിടെ ഒരു റെയിൽ റെയിൽ ക്രോസുണ്ട് അപ്പോൾ റെയിൽ ക്രോസിൻ്റെ അവിടെയെന്ന് പറയുമ്പോൾ ആടെ അണ്ടർ ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് ട്രാവലിംഗിന് അത് അടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽക്കൂടെ നമുക്ക് പോവാൻ പറ്റില്ല നമുക്ക് അപ്പുറത്ത ദേശത്തേക്ക് പോവണമെങ്കിൽത്തന്നെ യാണെങ്കിലും നമ്മൾ ചുറ്റിക്കറങ്ങി പോവണം അത്റക ച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് അങ്ങനെയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അധികം ഗതാഗതത്തിനാണെങ്കിലും പഠന സൗകര്യങ്ങൾക്കാണെങ്കിലും ജോലിക്ക് പോവുന്നതിനാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവുന്നതിനാണെങ്കിലും കൂടുതലും നമ്മൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടില്ല അത്യാവശ്യം ഇങ്ങനെ മഴക്കാലങ്ങളിലൊക്കെ ഇങ്ങനെ റോഡൊക്കെ ഇങ്ങനെ ബ്ലോക്കാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇന്നുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല